ഇന്നത്തെ കാലത്ത് മലയാളഭാഷ സംസാരിക്കാ മ്പോ ഞമ്മള് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് ചോദിച്ചിരുന്നാ ഒന്നാമത് നമുക്ക് ഈ കേരളത്തില് മാത്രം നമ്മുടെ ഈ മലയാളം ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂള്ളൂ പുറത്തുനിന്ന് പോയി പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ള നമ്മുടെ ലാംഗ്വേജ് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നത് ചിലവർക്ക് മനസ്സിലാവാം ചിലവർക്ക് മനസ്സിലാവാതിരിക്കാം അപ്പോൾ കൂടുതൽ നമ്മള് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്ത് യൂസ് ചെയ്യുന്നത് കൂടുതൽ മലയാളമാണ് അത് ഏത് സ്ലാങ്ങിൽ ആയിക്കോട്ടെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം പാലക്കാട് തൃശ്ശൂർ ഏത് സ്ലാങ്ങില് ഏത് ജില്ലയില് ഏത് സ്ലാങില് സംസാരിച്ചാലും നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാർക്കറിയാം പക്ഷേ പുറത്തൊക്കെ നമുക്കൊരു ജോബിനു വേണ്ടിട്ടൊക്കെ പുറത്തൊക്കെ പോയീന്നു പറഞ്ഞാൽ അവരായിട്ട് നമുക്ക് ചിലപ്പം ഇംഗ്ളീഷൊക്കെ സംസാരിക്കാൻ ഫ്ലുവെൻറ്റ് ആയിട്ട് അറിയില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നമുക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല നമ്മള് മലയാളത്തിൽ കുറച്ചൊക്കെ അങ്ങനെ സംസാരിച്ച്ന്നാ ചിലപ്പം അത് മനസ്സിലാക്കാൻ നമ്മള് സംസാരിച്ചാളുമായിട്ട് അത് മനസ്സിലാക്കാൻ അവർക്ക് ചിലപ്പം പറ്റീന്ന് വരില്ല ചിലപ്പം അവര് എന്താണ് ചോദിച്ചതെന്നു ചിലപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കും നമുക്ക് അത്രയും ഫ്ലുവെൻറ്റ് ആയിട്ട് പുറത്തു പോയാൽ അറിയേണ്ടത് ഇംഗ്ലീഷും ഹിന്ദിയാണ് പക്ഷേ നമ്മുടെ കേരളത്തിൻറ്റെ ഉള്ളിൽ എന്നു പറഞ്ഞാൽ മെയിനായിട്ട് അറിയേണ്ടത് മലയാളഭാഷ തന്നെ നന്നായിട്ടറിയണം ഈ കേരളത്തിലുള്ളവരെ കൂടുതല് മലയാള ഭാഷകളൊക്കെ സംസാരിക്കൂള്ളൂ പുറത്ത് നമ്മള് ജോ ജോബിനായാലും അല്ലെങ്കിൽ വിസിറ്റിങ് വിസക്കൊക്കെ അങ്ങനൊക്കായാലും ഞമ്മള് പുറത്തൊക്കെ കൂടുതലും സംസാരിക്കുന്നത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയൊക്കെയായിരിക്കും ആ ആ ഇവിടെ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്തിന് ഇംഗ്ലീഷ് സംസാരിച്ചാലും മലയാളം സംസാരിച്ചാലും അവർക്കറിയാൻ പറ്റും പക്ഷേ പുറത്തു പോയി പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല അവർക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദീലോക്കെ പറഞ്ഞാൽ മാത്രം അവർക്ക് അറിയാൻ പറ്റുള്ളൂ കൂടുതലും പുറത്തുള്ളവർക്കാറിയാവുന്നത് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെയാണ് അപ്പോൾ ഇപ്പോഴ് ഇപ്പോഴുള്ള നാട്ടുകാര് ഇപ്പോൾ എന്താണ് ഈ ഒരു ഭാഷയില് വെല്ലുവിളികളൊക്കെ ഇതൊക്കെയാണ് പുറത്തു പോയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് മറ്റുള്ളവര്നോട് എന്തൊക്കെ സംസാരിക്കണംന്നൊക്കെ അറിയാത്തൊരവസ്ഥ അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്